നമ്മുടെ അതായത് നമ്മുടെ വിഭവങ്ങള് കൂടുതൽ രുചികരമാക്കാൻ ഏതെങ്കിലും പൊടികൈകള് കാര്യങ്ങള് തന്ത്രങ്ങളോ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കില് തീർച്ചയായിട്ടും അതിപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഞാൻ ഇപ്പം ചിക്കൻ കറിയുടെ കാര്യം തന്നെ പറയാം ഇന്നത്തെ കാലത്തൊക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് അതായത് തക്കാളി ഉള്ളി ഒരു മസാലയൊക്കെ അതില് ചിക്കൻ പൊടി ഇടുന്നു കറി വെക്കുന്നു അത്രയും ഉള്ളൂ സിംപിളായിട്ട് ഒരു അര അരമണിക്കൂര് വേണ്ട ഒരു ഇരുപത് മിനിറ്റുകൊണ്ട് നമുക്ക് ചിക്കൻ കറി റെഡി ആയി പക്ഷെ പണ്ടത്തെ കാലത്തൊക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതായത് മല്ലി മല്ലി വറുത്തരയ്ക്കും നമ്മുടെ അതയത് ചുവന്ന മുളക് വറുത്തരക്കും പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഗ്രാമ്പു പട്ട പെരുംജീരകം അങ്ങനെയുള്ളതൊക്കെ വറുത്തരച്ച് നല്ല അടിപൊളി ചിക്കൻ ചിക്കൻ മസാലയല്ല ഗരം മസാലയാക്കി പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ചിക്കനൊക്കെ നല്ലോണം പെരക്കി വെച്ച് പിന്നെ വറുത്തരച്ച അതായത് തേങ്ങ തേങ്ങയില് പെരുംജീരകവും ഗ്രാമ്പുവും പട്ടയുമൊക്കെ ഇട്ട് നല്ലോണം വറുത്തരച്ച് വെക്കുന്ന കറികളായിരിക്കും അതായത് പണ്ട് നമ്മള് കൂടു പണ്ട് കാലത്ത് കാലങ്ങളിലൊക്കെ കൂടുതലും വീട്ടിലാണ് ഉണ്ടാക്കുക അപ്പോൾ അന്ന് ഇന്നൊന്നും ആരും അങ്ങനെ അധികം കഷ്ടപ്പെടാനൊന്നും താൽപര്യപ്പെടുന്നില്ല അതുകൊണ്ടുത്തന്നെ അങ്ങനത്തെ കറിയൊന്നും അതായത് അമ്മിയിലാണ് ഇതൊക്കെ അരയ്ക്കുക അപ്പം അതിന് ഭയങ്കര ആ കറിക്ക് ഭയങ്കര ടേസ്റ്റ് ആണ് ഞാൻ ഇപ്പളും എൻ്റെ വീട്ടില് അങ്ങനെ അമ്മിയിലൊക്കെ അരച്ചിട്ടാണ് വെക്കാറ് അതായത് ചിക്കൻ പൊടിയൊന്നും മേടിച്ചിട്ടൊന്നും അല്ല വെക്കാറ് അപ്പം എൻ്റെ വീട്ടിലൊക്കെ എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ട്ടമാണ് അപ്പം ഞാൻ ഉപയോഗിക്കുന്ന തന്ത്രം അതുതന്നെയാണ്